എൻ്റെ കുട്ടി പഠിക്കുന്നത് പീസ് ഇസ്ലാമിക് സ്കൂളിലാണ് അവിടത്തെ ഫീസ് ഘടനയെ കുറിച്ചു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് പിസ് ഇസ്ലാമിക് സ്കൂളിലെ ഫീസ് ഘടന അവിടെ വളരെയധികം അറയ്ക്കലാണ് നമ്മൾ കാണാൻ സധിക്കുക നല്ല പൈസ നമ്മളുടെ അടുത്തു നിന്ന് മേടിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവർ മേടിക്കുന്ന പൈസയുടെ ആ അളവിൽ അവർ ഒരിക്കലും വിദ്യാഭ്യാസം അവരെ സപ്ലൈ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാം ഇപ്പോൾ എൻ്റെ ഫീസ് ഘടനയെക്കുറിച്ചു ചോദിക്കുമ്പോൾ എൻ്റെ കുട്ടി ആദ്യമായിട്ട് സ്കൂളിലേക്ക് ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ പോകുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ എഴുപത്തി അയ്യായിരം രൂപ അടയ്ക്കേണ്ടതുണ്ട് എഴുപത്തി അയ്യായിരം രൂപ അടച്ചാൽ അതിന് ശേഷം ഓരോ മാസവും എൻ്റെ കുട്ടിക്ക് വേണ്ടി ഓരോ മാസവും ഞാൻ ചിലവാക്കുന്നത് അയ്യായിരം രൂപ സ്കൂൾ ഫീ മാത്രം ഇതിന് പുറമേ ബസ് ഫീ അതുപോലെ തന്നെ മറ്റുള്ള ഭക്ഷണ ചിലവുകൾ അവിടെ നിന്ന് ഭക്ഷണം കിട്ടുന്നില്ല ഇവര് മേടിക്കുന്ന അയ്യായിരം രൂപ വെറും പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസത്തിനുള്ള ചിലവ് മാത്രമാണ് അതൊരു ഇൻറർനാഷണൽ സ്കൂളാണ് പീസ് ഇസ്ലാമിക് സ്കൂൾ എന്നുള്ളത് പക്ഷേ ഈ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നുള്ള പേര് വച്ചിട്ട് അവർ കുറേ പൈസ നമ്മളിൽ നിന്ന് വാരുകയാണ് ഈ സമ്പ്രദായം ഒരിക്കലും നമ്മൾ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു സമ്പ്രദായമാണ് പിസ് ഇസ്ലമിക് സ്കൂൾ ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിന് ശരിക്കും ഫീസ് മേടിക്കേണ്ട ആവശ്യമുണ്ടോ ഓക്കെ അവരുടെ ചിലവുകൾ മീറ്റ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിലും ഈ തരത്തിൽ വലിയ ഫീസ് ഫീസുകൾ കുട്ടികളുടെ പഠനാവശ്യം എന്നു പറഞ്ഞു വേടിക്കാൻ അവർക്ക് അവകാശമുണ്ടോ വിദ്യാഭ്യാസം ഗവൺമെൻ്റ് സ്കൂളുകളിലൂടെ വെറുതെ കൊടുക്കുന്ന സമയത്ത് ഞാനൊക്കെ കൊടുക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപ സ്കൂളിൽ വർഷംതോറും കൊടുക്കുകയാണ് അതിന് പുറമേ ഓരോ മാസവും അയ്യായിരം രൂപ അടയ്ക്കുക എന്ത് ഗതികേടാണ് ഇത് എൻ്റെ മകൻ ഒന്നാമത് ഞാൻ എൻ്റെ കുട്ടിയെ പറഞ്ഞയച്ച പോലത്തെയുള്ള സ്കൂള് സാധാരണയായിട്ട് ഈ സ്റ്റാറ്റസ് നോക്കി അവിടെ പോയില്ലെങ്കിൽ എൻ്റെ മകന് അടിയിലാവുമല്ലോ സ്റ്റാറ്റസ് നോക്കി മാത്രം ചേർക്കുന്ന ഒരു സ്കൂൾ ആണ് അത് ആ ഒരു പേര് പറഞ്ഞു കൊണ്ട് ഇങ്ങനെ രക്ഷിതാക്കളിൽ നിന്നും പണം കവർച്ച നടത്തുകയാണ് സ്കൂൾ മേധാവികൾ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള പ്രൈവറ്റ് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ നാഷണലയിട്ടുള്ള സ്കൂളുകളേക്കാൾ നല്ലത് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകൾ ആണ് അവിടെ ഫീസ് ഘടനകൾ ഒന്നുമില്ല